എന്റെ പ്രദേശം കോട്ടയമാണ് ടൂറിസ്റ്റുകൾ അനേകർ വന്നുപോകുന്ന ഒരിരിടമാണ് കോട്ടയം പ്രത്യേകിച്ച് കുമരകം ഭാഗത്തേക്കു ടൂറിസ്റ്റുകളുടെ ഒരു നല്ല നിര തന്നെ എപ്പോഴും കാണാറുണ്ട് ബോട്ട് സര്വ്വീസ് അതാണ് ഏറ്റവും കൂടുതല് അവരെ ആകര്ഷിക്കുന്നത് കായലില്ക്കൂടുള്ള ബോട്ടിന്റെ മന്ദ ഗതിയിലുള്ള പോക്കും അവിടെ ആകര്ഷകമായ മത്സ്യങ്ങളും വല വീശുന്നതും ഒക്കെ കാണാന് ടൂറിസ്റ്റുകള്ക്ക് ഒത്തിരി ആകര്ഷകമാണ് പിന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്നു പറയുന്നത് ആ റുട്ടിലേക്കു നമുക്ക് ഗതാഗതത്തിന് ഇച്ചര പ്രയാസമുണ്ട് ഇപ്പം അത് അത് റോഡുകളുടെ വികസനം വന്നതോടുകൂടി ആ പ്രദേശത്തിന്റെ റോഡുകളുടെ ഗതാഗത സൗകര്യങ്ങള് കൂടുതലായിട്ടു വരുന്നുണ്ടിപ്പോൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകള് വരുമ്പോഴത്തേക്ക് നമ്മൾ ഹൗസ് ബോട്ടുകളാണ് കൂടുതലായിട്ടവർ ഉപയോഗിക്കുന്നത് അവിടെ തന്നെ താമസവും അടിസ്ഥാന സൗകര്യങ്ങളും ഭക്ഷണവും ഒക്കെ തന്നെ ആ ഹൗസ് ബോട്ടിൽ നമുക്കു ലഭ്യമാണ് ഹൗസ് ബോട്ടില് കൂടി നമുക്ക് ലഭിക്കുമ്പോള് നമ്മൾ തന്നെ മെനു പറഞ്ഞുകൊടുക്കുന്നു അതനുസരിച്ച് അവർ ഫ്രഷ് ആയിട്ടുള്ള മീൻ ആണെങ്കിലും ഫ്ര ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആഹാരം പാകം ചെയ്ത അവർ തരുന്നുണ്ട് ഹൗസ് ബോട്ടിനെ കുറിച്ചു പറയുവാണെ കൂടുതലായിട്ട് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ അവിടെ പറയാനുണ്ട് ഹൗസ് ബോട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നായിട്ട് തന്നെ അവർ നമുക്ക് തരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷണം തരാനും അവർ ഒത്തിരി ഒത്തിരി ഉത്സാഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദേശികള്ക്ക് കായലിൽക്കൂടി കടന്നുപോകുമ്പോഴത്തേക്കും ഒരു വല വീശുന്നതും അതോടൊപ്പം തന്നെ ഫിഷുകൾ ധാരാളം അവിടെ കാണുകയും അതുകൊണ്ട് തന്നെ തെങ്ങിന്തോപ്പുകള് നിറഞ്ഞ ഒരു കായല് അരികത്തുകൂടിയാണ് ഹൗസ് ബോട്ട് പോകുന്നത് അപ്പോൾ തന്നെ വിദേശികള്ക്കാണെങ്കിലും നമുക്കാണെങ്കിലും കൂടുതൽ രസകരമായും നല്ല കാറ്റുവീശി മന്ദഗതിയിലുള്ള ഹൗസ് ബോട്ടിന്റെ ആ പോക്കും അവിടെ കാണുന്ന ആ ഹൗസ് ബോട്ടിനകത്ത് നമുക്ക് കൂടുതലായി എന്റര്ടെയിമെന്റ് ചെയ്യാനുള്ള ഒത്തിരിഒത്തിരി കാര്യങ്ങള് അവിടെ നടക്കുന്നുണ്ട് ഹൗസ് ബോട്ടില് നമുക്ക് വൈകുന്നേരങ്ങളില് അവർ നമുക്ക് ഉത്സാഹത്തിനുവേണ്ടി വളരെ ഒരു എന്തുവാ ആള്ക്കാരെ നിര്ത്തി കൊണ്ട് ഡാന്സ് പാട്ട് അതുപോലെയുള്ള നമുക്കും പ്രായമുള്ളവര്ക്കു പോലും എന്ജോയ് ചെയ്യാന് പറ്റുന്ന രീതിയില് അവർ നമുക്ക് ക്രമീകരിച്ചു തരുന്നുണ്ട് അതിനകത്ത് തന്നെ നമുക്ക് താമസിക്കുവാനും കിടക്കുവാനുമുള്ള ബെഡ്ഡുകൾ പോലെ ഉള്ള കാര്യങ്ങൾ അവരവിടെ ഹൗസ് ബോട്ടിനകത്ത് നമുക്ക് ഇണക്കി തരുന്നുണ്ട് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതല് ആകര്ഷിക്കുന്നത് ഈ കായല് തീരത്തോടുള്ള ഹൗസ് ബോട്ടിന്റെ ആ പോക്ക് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാന് സാധിക്കുന്നത് അപ്പോൾ തീര്ച്ചയായിട്ടും എല്ലാതരത്തിലും ഈ ഹൗസ് ബോട്ടുകള്ക്ക് ഈ ടൂറിസ്റ്റുകള്ക്കു വരുവാനുള്ള ഒരു സ്ഥലമായി നമ്മുടെ കോട്ടയം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കൂടുതലായിട്ട് സാധിക്കുന്നത് അപ്പോൾ തന്നെ എല്ലാ വര്ഷവും നമ്മളോടൊപ്പം തന്നെ കേരളത്തിലുള്ളവരെക്കാള് കൂടുതൽ വിദേശികളാണ് നമ്മുടെ കുമരകം ഭാഗത്തേക്ക് ടൂറിസ്റ്റുകാരായിട്ടു എല്ലാ വര്ഷവും കാണുന്നൊരു പ്രകൃതമാണ് അതുപോലെ തന്നെ നമുക്ക് അവിടെ അവിടുത്തെ കാണാന് പറ്റുന്ന ടൂറിസ്റ്റുകാരെ ആകര്ഷിക്കുന്ന ഒരു സംഭവമാണ് വള്ളംകളി അപ്പോൾ അവിടെ ഭാഗത്തേക്കു വള്ളംകളി കാണുവാനായിട്ട് അനേകം ടൂറിസ്റ്റുകാര് വരുന്ന വന്നു പോകുന്നത് നമുക്ക് കാണാന് സാധിക്കുന്നുണ്ട് അത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് വള്ളംകളികളുടെ ഒരു ഘോഷയാത്രയെന്നു ഓണം അടുത്തു വരുമ്പോഴത്തേക്കും നമുക്ക് ടൂറിസ്റ്റുകളുടെ ഒരു വലിയ വമ്പിച്ച ഒരു നിര തന്നെ ആലപ്പുഴ കോട്ടയം ഭാഗത്തേക്കു വരുന്ന നമുക്ക് കാണാനായിട്ടു സാധിക്കുന്നുണ്ട് അപ്പോൾ തീര്ച്ചയായിട്ടും എല്ലാ ടൂറിസ്റ്റുകാരെയും നമുക്ക് ആകര്ഷിക്കുവാനുള്ള ഒരു നല്ല സ്ഥലമാണ് കുമരകം കോട്ടയം ഭാഗം എന്നു ഉറപ്പിച്ചു പറയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ തീര്ച്ചയായിട്ടും എല്ലാവരെയും ആകര്ഷിക്കത്തരിക സഞ്ചാരികളെ ടൂറിസ്റ്റുകാരെ കൂടുതല് ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു നല്ല പിന്നെ ഇതാണ് നമ്മുടെ ഈ കോട്ടയം കുമരകം ഭാഗത്തേക്ക് നമുക്ക് ഹൗസ് ബോട്ട് നമുക്ക് തരുന്നത് തീര്ച്ച ആയിട്ടും ഗതാഗത സൗകര്യങ്ങള് നമുക്ക് നല്ലരീതിയിൽ തന്നെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് തൊള്ളി ഗതാഗത സൗകര്യങ്ങള് ഇച്ചര നമുക്ക് റോഡുകളുടെ ഒരു വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ടാണ് നമുക്ക് റോഡുകളുടെ ഒരു അസൗകര്യം നേരിട്ടിരിക്കുന്നത് അപ്പോൾ തീര്ച്ചയായിട്ടും അതെല്ലാം മാറിക്കൊണ്ട് ഗതാഗതസൗകര്യങ്ങള് നല്ലരീതിലാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നും രാഷ്ട്രീയക്കാരുടെ എം എല് എ എം പി ഭാഗത്തും നിന്നുള്ള വളരെയേറെ ശ്രദ്ധ അവിടെ ചെലുത്തുന്നുണ്ട് കാരണം ടൂറിസ്റ്റുകള് അനേകർ ആകര്ഷിക്കുന്ന ഒരു സ്ഥലം ആയതു കൊണ്ടു കൂടി അവിടേക്ക് ഗതാഗതങ്ങൾ പിന്നെ മനുഷ്യര്ക്കു നടന്നു വരാന് ടൂറിസ്റ്റുകാര്ക്കു വളരെ കടന്നു വരുവാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റുവാന് വളരെയേറെ ശ്രദ്ധ ആ റോഡുകള്ക്കു കൊടുക്കുന്നുണ്ട് ആ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോഴും റോഡുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ നല്ല രീതില് ഗതാഗതം തടസ്സപ്പെടാതിരിക്കുവാനുള്ള രീതിയില് പിന്നെ പാലം പോലെയുള്ള പാലങ്ങളും എല്ലാംതന്നെ അവിടെ വികസിപ്പിച്ചു വികസനത്തിന്റെ സഞ്ചാരി സഞ്ചാരികളെ ആകര്ഷിക്കുവാന് നമുക്കെന്തു ചെയ്യാൻ കഴിഞ്ഞ കൂടുതലായിട്ട് കുറച്ചു കൂടി പിന്നെ ഇവര്ക്ക് ഗതാഗതസൗകര്യങ്ങള് ഉണ്ടാക്കി കൊടുക്കുകയും അവരെ ആകര്ഷിക്കുന്ന രീതിയിലുള്ള ഈ ഹൗസ് ബോട്ടുകള്ക്ക് കുറച്ചുംകൂടി ഒരു നല്ലരീതിലുള്ള റൂമ്സ് അതിനകത്ത് ഏ സി പോലെയുള്ള റൂമുകള് ഉണ്ടെങ്കില് കൂടുതലും ഉണ്ട് ഇപ്പോൾ തന്നെ ഉണ്ട് അതിനെകാട്ടിലും കൂടുതൽ റൂമ്സ്സുകൾ ഈ ഹൗസ് ബോട്ടിനകത്ത് കുറച്ചു കൂടി റൂമുകള് ഉണ്ടാക്കുകയും കുറച്ചുംകൂടി എല്ലാവര്ക്കും എൻ്റര്ടെയിന്മെന്റ് ചെയ്യുവാനുള്ള ഒരു പ്ലാറ്റ് ഫോം അവിടെ ആ ഹൗസ് ബോട്ടിനകത്ത് ഉണ്ടെങ്കില് ഒത്ത് ഒന്നുകൂടി നല്ലതായിരിക്കും എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത്